ആ മാഡം പറഞ്ഞോളൂ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയത് ആയിട്ടുള്ള എല്ലാ മോഡല് കാറുകളും ഇവിടെ ലഭ്യമാണ് ഫുൾ ഓപ്ഷനാണ് ഇപ്പോൾ ഹ്യുണ്ടായിൻ്റെ വെന്യു ഉണ്ട് ഐ ട്വന്റി ഉണ്ട് ഐ ടെന്നുണ്ട് പിന്നെയിപ്പോൾ പുതിയത് വന്നത് നെക്സയെന്ന് പറഞ്ഞിട്ടൊരു നെസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു പെർഫോമൻസ് ഇപ്പോൾ എല്ലാത്തിനും സെയിം തന്നെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷനിൽ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഡോറ് പവർ വിന്റോ ആയിരിക്കും പിന്നെ ബാക്ക് വൈപ്പർ ഉണ്ടാവും പിന്നെ നാല് എയർ ബാഗ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്റ്റീരിയോ സിസ്റ്റം എല്ലാം നല്ല ആയിരിക്കും ആ പിന്നെ വേറെന്തൊക്കെയാണ് വേണ്ടത് എമൗണ്ടിപ്പോൾ ഐ ട്വന്റിക്കാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ആറെ ചില്ലറ വരും അതായത് ബേസ് മോഡലിന് ആ ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പം ഫുൾ ഓപ്ഷന് ആകുമ്പോഴത്തേക്കും ഒരു ഒമ്പതും ചിലറേന്റെ അടുത്തൊക്കെ വരും ആ അപ്പോൾ ഏ ആ ഇ എം ഐ ആ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കിത്തരാം ഇപ്പോൾ നല്ലത് നിങ്ങൾക്കിപ്പോൾ വേറെ സിബിൽ സ്കോറോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ വേറെയെന്താ പറയുക ഇപ്പോൾ നാല്ലൊരു കസ്റ്റമറ് നിങ്ങളിപ്പോൾ നല്ലൊരു കസ്റ്റമറാണെങ്കിൽ നമ്മൾക്ക് ഫുള്ളായിട്ട് ലോണ് ചെയ്യാൻ വണ്ടിപ്പറ്റും ഇപ്പോൾ ഒമ്പത് ഒമ്പതു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും ആ വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ല മൈലേജ് ഫുൾ ഓപ്ഷൻ ആണ് കുറച്ചുംകൂടി കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ വേറെവേറെ ആയിരിക്കും അപ്പം നമ്മൾക്ക് അതിനനുസരിച്ച് മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഓരോന്നിൻ്റെ ഇതനുസരിച്ചിരിക്കും മാക്സിമം നമുക്ക് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആ മൈലേജ് കിട്ടും ആ അത്രയും കിട്ടും ആ കളറ് എല്ലാ വേരിയന്റും കളറുണ്ട് നമുക്ക് എന്താ പറയുക ഇപ്പം ഗ്രീനുണ്ട് ഒരു ലൈറ്റ് ഗ്രീനുണ്ട് പിന്നെ ബ്ലൂവുണ്ട് പിന്നെ റെഡ്ഡുണ്ട് ആ ഗോൾഡൺ ടച്ച് വരുന്ന കളറും എല്ലാം ഉണ്ട് കുഴപ്പമൊന്നുമില്ല മാം ഇവിടെ വന്നിട്ടൊന്ന് നോക്കിയിട്ട് മാമിനു ഏതു കളറാണോ സജ്ജെസ്റ്റ് ചെയ്യേണ്ടത് അത് വന്നു നോക്കികഴിഞ്ഞാൽ നമ്മൾക്ക് റെഡിയാക്കിത്തരാം പറ്റും നമ്മളിപ്പോൾ ഈ നാളെ വന്നിട്ട് മാഡം വന്നിട്ട് ഇതെന്ത് ചെയ്യുക വണ്ടി ബുക്ക് ചെയ്യുക വണ്ടി ബുക്ക് ചെയ്തിട്ട് ഏതാണ് കളറ് വേണ്ടതെന്നു വച്ചാൽ അത് ചെയ്യുക അത് ചെയ്തതിനുശേഷം ഒരു പതിനഞ്ചു ദിവസത്തിന് ഉള്ളിൽ വണ്ടി കയ്യിൽക്കിട്ടും നമ്മൾ കയ്യിൽ ഇതിൽ വരുന്നത് ടെമ്പററി രജിസ്ട്രേഷൻ ആയിരിക്കും ബാക്കിയിള്ളത് പിന്നെ നിങ്ങൾക്ക് നമ്പറേതാണ് വേണ്ടതെന്ന് വച്ചാൽ ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഫാൻസി നമ്പറ് കാര്യങ്ങളൊക്കെയുണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ആ ഷോറൂമിൽ വന്നാൽമതി വണ്ടി അവിടെ നിന്നുതന്നെ ആ വീട്ടിൽ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുതരും അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നാൽ മാഡം നാളെ വന്നാൽമതി കേട്ടോ ഓക്കേ എന്നാൽ